സംഗീത് റിയാലിറ്റി ഷോസ് കാണാറുണ്ട് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട പല ഗാനങ്ങളും വേറെ ഗായകരുടെ സ്വരത്തിൽ കേൾക്കുന്ന ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് അതുപോലെ തന്നെ അതിൽ വിധികർത്താക്കളായിട്ട് ഇരിക്കുന്നവർ നൽകുന്ന ഉപദേശങ്ങളും അത് പോലുള്ള സംഭവങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് സംഗീത റിയാലിറ്റി ഷോയിൽ ഏറ്റവും അധികം ആകർഷിക്കുന്ന ഒരു കാര്യം നമ്മൾ കേട്ട സ്വരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റുള്ളവർ സ്വരങ്ങളിൽ അത് കേൾക്കുമ്പോൾ ഒരുപക്ഷേ അവരെകാട്ടിലും അതായത് പാടിയ ഗായകരെകാട്ടിലും മികച്ചവരായ ആൾക്കാര് വേറെ ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകാറുണ്ട് അതുപോലെ സംഗീത റിയാലിറ്റി ഷോയില് ഇൻസ്ട്രുമെൻ്റെഷൻ്റെ സെറ്റിംഗ്സ് നമ്മൾ കേൾക്കുമ്പോൾ ശബ്ദത്തിലൂടെ മാത്രം നമ്മൾ അറിയുന്ന ഇൻസ്ട്രുമെൻ്റേഷൻസ് പ്രവർത്തിപ്പിക്കുന്നതും ഇൻസ്ട്രുമെൻ്റേഷൻ ഉപയോഗിക്കുന്ന കാണുമ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകാറുണ്ട് അതുപോലെ സംഗീത റിയാലിറ്റി ഷോകള് ഇപ്പോൾ മത്സരമായി മാറിയതോടുകൂടി അത് നടക്കുന്ന മറ്റ് അതായത് അനാരോഗ്യകരമായ പല പ്രവണതകള് മാറ്റി നിർത്തിയാല് അതിൻ്റെ കാമ്പുള്ള വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ് അതുപോലെതന്നെ ഒരു സംഗീതം പിറക്കുന്നതിന് പിന്നിലുള്ള കഥകൾ അണിയറ കഥകള് അതിനു പിന്നിലുള്ള വിദഗ്ധര് അതിന് പിന്നിലുള്ള സാങ്കേതിക വിദഗ്ധര് അതിന് പിറകിലുള്ള ഇൻസ്ട്രുമെൻ്റേഷൻ അതുപോലുള്ള പല കാര്യങ്ങളും അറിയാനായിട്ട് സംഗീത റിയാലിറ്റി ഷോയിലൂടെ സാധിക്കാറുണ്ട് സംഗീത റിയാലിറ്റി ഷോകള് ഒരു പരിധി വരെ മികച്ചതാണ് പക്ഷേ അത് തീർത്തും മത്സരമായി മാത്രം മാറുമ്പോൾ അത് വളരെ അരോചകമായി തീരും അത് ഒരു ഹുങ്ക് ഒരു പുങ്കത്തരമായിട്ട് മാറുന്നതുകൊണ്ട് സംഗീത റിയൽ റിയാലിറ്റി ഷോയ്ക് വലിയ പ്രാധാന്യം ഒന്നും നൽകുന്നില്ല എങ്കിലും സംഗീതത്തിന് മതമില്ല ജാതിയില്ല സംഗീതത്തിന് അതിരുകളില്ല എന്ന് പറയാറുള്ള എല്ലാവരെയും ബന്ധിപ്പിക്കുന്ന ഒരു മാധ്യമം ആണല്ലോ സംഗീതം അതുകൊണ്ട് തന്നെ സംഗീത റിയാലിറ്റി ഷോകൾക്ക് പ്രാധാന്യം കൊടുക്കാണ്ട് ശ്രദ്ധിക്കാറുണ്ട് സംഗീത റിയാലിറ്റി ഷോകളിൽ ഏറ്റവും കൂടുതല് മത്സരത്തിലേക്ക് മാറിയതിലൂടെ അത് അരോചകമായി മാറി എന്നുള്ളത് സത്യമാണെങ്കിലും ഒരിക്കലും സംഗീത റിയാലിറ്റി ഷോകൾ ഒര് ബോറിങ് പരിപാടിയായി മാറത്തില്ല കാരണം സംഗീതം ഒരിക്കലും മരിക്കുന്നില്ല സംഗീതം എന്നും നില നില്കുന്നു അതിരുകളില്ലാതെ അതെന്നും നിലനിൽക്കും